ഞാൻ അത്ര ഗായകൻ അല്ല എങ്കിലും പാട്ടുകൾ പാടും പാട്ടുകൾ കേൾക്കുന്നതാണ് കൂടുതൽ ഇഷ്ട്ടം പല പുതിയ പാട്ട് പഴയ പാട്ടുകളാണ് കൂടുതലായും എനിക്ക് ഇഷ്ട്ടം ഈ പാട്ടുകൾ കേൾക്കുമ്പോൾ മനസ്സിനുണ്ടാകുന്ന ഒരു സംതൃപ്തി തന്നെയാണ് ഏറ്റവും വലുത് ഞാൻ എനിക്ക് ഏറ്റവും കൂടുതൽ പാട്ടുകൾ ഇഷ്ടമാണ് ഞാൻ പാടുമോ എന്ന് ചോദിച്ചാൽ സംഗീതം പഠിച്ചിട്ടില്ല ഒന്നും ഇല്ല എങ്കിലും കേട്ടു പാടുന്ന ഒരു ശീലം ഉണ്ട് അത് ഇന്നും തുടരുന്നു ഭാവിയിലും എപ്പോഴും മനസ്സിന് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള സാഹചര്യങ്ങളിൽ ഞാൻ പാട്ടുകൾ കേൾക്കാറുണ്ട് പാട്ട് എനിക്ക് വളരെ ഇഷ്ടമാണ് പഴയ കാലത്തെ ദേവരാജൻ മാസ്റ്ററിൻ്റെയും അതുപോലുള്ള പഴയ ഗാനങ്ങളോടാണ് എനിക്ക് ബവുക്കയുടെയും അങ്ങനെ പല പഴയ ഗാനത്തോടാണ് കൂടുതൽ താൽപര്യം ഇപ്പോഴും മിക്ക ചില പാട്ടുകൾ അതിൽ കൊള്ളാം എന്നിരുന്നാൽ പോലും പഴയ പാട്ടിൻ്റെ അത്രയും നമുക്കൊരിക്കലും തൃപ്തി വരുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ഈ പഴയ പാട്ടുകൾ നമ്മൾ ശേഖരിക്കുകയും അത് കൂടെ കൂടെ കേൾക്കുകയും ഇതൊക്കെ ചെയ്യും അല്ലാതെ ഇതൊരു പ്രൊഫഷൻ ആയി ഒരു തൊഴിലോ മറ്റൊന്നും അല്ല പാട്ടിനോട് കേൾക്കുന്നത് മനസ്സിന് സുഖവും ആനന്ദവും ഉള്ള കാര്യമായത് കൊണ്ട് ഞാൻ കൃത്യമായി പാട്ട് കേൾക്കുന്നു ഭാവിയിലും നമ്മളെ ഏത് സമയങ്ങളിലും വിശ്രമ വേളകളിലും അല്ലെങ്കിൽ നമുക്ക് മനസ്സിന് എന്തെങ്കിലും ഇതുപോലുള്ള സമയങ്ങളിലും പാട്ട് കേൾക്കുന്ന ശീലം തുടർന്നു കൊണ്ടേയിരിക്കും